സ്വയം പരിചരണത്തിന് അല്ലെങ്കില്ല് സ്ട്രെസ്സ് അങ്ങനെയുള്ള വർക് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ യോഗ നല്ല തന്നെയാണ് യോഗ ചെയ്യുന്നത് കൊണ്ട് കൂടുതലായിട്ടും അസുഖങ്ങള് കുറയ്ക്കാം പിന്നെ വ്യായാമം ചെയ്യുന്നപോലെ ശരീരത്തിന് നല്ല വഴക്കം ഉണ്ടാവും നമുക്കിപ്പം ഒന്ന് കുനിയണമെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാകും എന്നാൽ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് കുനിയുമ്പഴോ നിവരുമ്പഴോ നടക്കുമ്പഴോ അങ്ങനെയുള്ള ഒരു പ്രയാസം ഒന്നും ഉണ്ടാവാറില്ല രോഗങ്ങൾക്കൊക്കെ ആദ്യം സ്വയം പരിചരണം നൽകാനൊക്കെ ഈ യോഗ നമ്മളെ സഹായിക്കും യോഗ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ രോഗങ്ങള് കുറവായിരിക്കും എന്നൊക്കെ പറയാറുമുണ്ട് രോഗികളാണെങ്കിലും ഇപ്പോൾ അതിന് ചെറു ചെറിയ കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും പ്രായമായവരും അങ്ങനെയുള്ള എല്ലാവരും ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നതുക്കൊണ്ട് നല്ല മാറ്റമുണ്ട് എന്നൊക്കെയാണ് അവരൊക്ക പറയണത് പിന്നെ ക അവര് പറഞ്ഞപോലത്തന്നെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മള് ചെയ്യണം രാവിലെയാണ് യോഗ ചെയ്യുന്നതിൻ്റെ സമയം ആ രാവിലെ തന്നെ എഴുന്നേറ്റു വേണം ഈ യോഗ ചെയ്യാന് അതുകൊണ്ട്തന്നെ യോഗ ചെയ്യുന്നത് നല്ല നല്ല കാര്യം തന്നെയാണ്